ഹലോ എൻ്റെ പേര് ഹരിഷ്മ നിങ്ങൾ നിങ്ങൾ പുതിയതായി സൃഷ്ട്ടിച്ചില്ലേ ആ പി എം കെ വി വൈ എന്ന് പറയുന്ന ആ പോർട്ടലിൽ എൻ്റെ ഇമെയിൽ അപ്പ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ആർ യു ഹരിഷ്മ ആർ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപ്പം എനിക്കാ സൈറ്റിൽ നിങ്ങളുടെ സൈറ്റിൽ എൻ്റെ ഇമെയിൽ അപ്പ്ഡേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അപ്പ്ഡേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് എനിക്കറിയണം എങ്ങനെയാണ് അപ്പ്ഡേറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ ഗൂഗിൾ വഴി സ്വന്തമായിട്ട് ഞങ്ങൾ ചെയ്താൽ മതിയോ അതോ ഞങ്ങൾ അക്ഷയയിൽ പോയി എന്തെങ്കിലും ചെയ്യുന്നോ ഇങ്ങനെ എന്തെങ്കിലും പൈസയ്ക്ക് എന്ത് പൈസെ എന്തെങ്കിലും ചിലവാക്കാനുണ്ടോ ഇതിനകത്ത് എത്ര രൂപയാണ് ഇതിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കേണ്ടത് ഇപ്പം എനിക്ക് രണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് അപ്പം അതിൽ ഏത് ഇമെയിൽ ഐ ഡി വേണം ഏത് പറ്റ് ഏത് ഏത് ഇമെയിൽ ഐ ഡി വയ്ക്കാം ഇപ്പോൾ രണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് അപ്പം ഞാൻ അതിൽ ഒന്നേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം അതിൽ ഏത് ഇമെയിൽ ഐ ഡി വേണം ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇമെയിൽ ഐ ഡി വച്ചാല് എനിക്ക് എനിക്ക് എനിക്ക് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇമെയിൽ നിങ്ങളുടെ ഈ സൈറ്റിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സാമൂഹികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് നിങ്ങൾ സൗഹൃദമായിട്ട് എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങള് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു നിങ്ങൾ എന്തൊക്കെ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് സാമൂഹികപരമായിട്ട് നിങ്ങൾ എന്തൊക്കെ വിര വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സാമൂഹികമായിട്ട് എന്തൊക്കെ സേവനങ്ങൾ മൻ പൊതുസമൂഹത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ സേവനങ്ങൾ എന്തൊക്കെ ആണെന്നയറിയാൻ വേണ്ടിയിട്ടും പിന്നെ യുവജനങ്ങൾ ഇപ്പോൾ വലിയതായിട്ട് ജോൽ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് തൊഴിൽ നൽകുന്നതായിട്ടും അറിയുന്നുണ്ട് അപ്പം ഇതിൻറെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് അപ്പ്ഡേറ്റ്സ് ഇടുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പം അത് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സൈറ്റിൽ ഞാൻ എൻ്റെ ഇമെയിൽ അപ്പ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അയയ്ക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ആ നിങ്ങൾ പങ്കുവയ്ക്കുന്ന ആശയങ്ങളും പിന്നെ എൻ എൻ്റേതായ കുറച്ച് ആശയങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എനിക്ക് തന്നെ പേഴ്സണലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നതിനും വേണ്ടി യാണ് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ആയ ആർ യു ഹരിഷ്മ ആർ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ നിങ്ങളുടെ പി എം കെ വി വൈ എന്ന നിങ്ങൾ പുതിയതായിട്ട് സൃഷ്ടിച്ച ആപ്പിൽ പോർട്ടലിൽ എൻ്റെ ഇമെയിൽ ഇമെയിൽ ഐ ഡി അപ്പ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത് നിങ്ങൾ ഇപ്പോൾ ഇത് പുതിയതായിട്ട് സൃഷ്ടിച്ച ആപ്പ് ഒരു പോർട്ടൽ ആണ് അപ്പോൾ ഇത് ആദ്യം ഇത് സേഫ് ആണോ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണോ നിങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണിതിലൂടെ പങ്ക് വയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി എന്തൊക്കെ തീരുമാനങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ വിലയിരുത്തലുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ സാമൂഹികമായ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ തൊഴിൽ സാധ്യതകൾ നൽകുന്നുണ്ട് പുതിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് പുതിയ നിങ്ങൾ പങ്കുവയ്ക്കുന്ന സമൂഹത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പോർട്ടൽ ആയ പി എം കെ വി വൈയിൽ അപേക്ഷി അപ്പ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഇമെയിൽ ഐ ഡി അപ്പ്ലോഡ് ചെയ്യേണ്ട എൻ്റെ ഇമെയിൽ ഐ ഡി ആർ യു ഹരിഷ്മ ആർ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണം എന്നാഗ്രഹിക്കുന്നു